തകഴി ശിവശങ്കര പിള്ളയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ കാരണം അദ്ദേഹം ഗ്രാമീണ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുപയോഗിച്ചുകൊണ്ടാണ് തൻ്റെ പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് കയർ പോലെ അല്ലെങ്കിൽ ചെമ്മീൻ പോലെയുള്ള ആ നോവലുകൾ എല്ലാം ഗ്രാമീണ ഭംഗി ഉരുത്തിരിഞ്ഞ് വരുന്ന ആശയങ്ങളിൽ നിന്നും എഴുതപ്പെട്ടതാണ് അപ്പോള് അദ്ദേഹം എഴുതിയിരുന്ന കാലഘട്ടത്തിലെ ജനങ്ങളും എന്നു പറഞ്ഞാല് അതിൻ്റെ വായനക്കാരും സാധാരണ ആളുകളാണ് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ വ്യക്തമായി സ്വാഭാവികതകൾ നഷ്ടപ്പെടാതെ ആ നോവലുകളൊക്കെ രചിക്കുന്നതിന് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് ചെമ്മീൻ പിന്നീട് സിനിമയായി ജനങ്ങളുടെ മുമ്പിൽ അവതരിക്കപ്പെട്ടു ആ നോവലിൻ്റെ ആ ഭംഗി ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ അതിനെ ഒരു സിനിമയായി അവതരിപ്പിക്കുന്നതിന് അതിൻ്റെ പിന്നാമ്പുറത്ത് പ്ര പ്രവർത്തിച്ച എല്ലവർക്കും കഴിഞ്ഞു ആ നോവലിൻ്റെ ആ പരിശുദ്ധി എല്ലാ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടതാണ് നോവല് വായിച്ചിട്ടില്ലാത്തവരാണങ്കിലും സിനിമയിലൂടെ അതിൻ്റെ ആ ഭംഗി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് തകഴിക്ക് ഒത്തിരിയേറെ അംഗീകാരം നമ്മുടെ സമൂഹത്തിൽ നേടിക്കൊടുത്ത ആ നോ പല നോവലുകളുമുണ്ട് അതുപോലെ തന്നെ സുഗതകുമാരി പ്രശസ്തയായ ഒരു എഴുത്തുകാരി അവര് പാരിസ്ഥിക വിഷയങ്ങളിൽ ഇടപെട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി പല രചനകളും നടത്തുകയുണ്ടായി സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ തൻ്റെ രചനകളെ ജനസമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിന് ഈ ഞാൻ പറഞ്ഞ രണ്ട് സാഹിത്യ പ്രവർത്തകർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇതിൻറ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒത്തിരിയേറെ അംഗീകാരം പൊതു സമൂഹത്തിൽ നേടിയെടുക്കുന്നതിനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ജനത്തെ നല്ല ആശയങ്ങൾ പഠിപ്പിക്കുന്നതിനും നല്ല വഴിയിലേക്ക് നടത്തുന്നതിനും ഇവരുടെ ആ എഴുത്തുകൾക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ സാഹിത്യ രചനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതെന്തായാലും നമ്മുടെ പൊതു സമൂഹം വില മതിക്കുന്നുണ്ട് നമ്മുടെ നാട് അവർക്കർഹമായ അംഗീകാരം ഈ സാഹിത്യ രചനകളുടെ പേരിൽ നൽകിയിട്ടുണ്ട് എന്നാണെൻ്റെ വിശ്വാസം